ഹലോ ഹലോ ആ പറഞ്ഞോളൂ സർ ഡ്രെസ്സിനു വേണ്ടീട്ടാണല്ലേ ഓക്കെ സാറിനെ വിളിച്ചോ ആ ഓക്കെ എങ്ങനെ ഫാമിലിക്ക് മൊത്തായിട്ടാണോ സർ ആ ഓക്കെ ഉണ്ട് സാർ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്

നമ്മളെല്ലാം ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് സാർ ഉള്ളത് നമ്മളെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രെസ്സുകളാണ് കൊണ്ടൊന്നേക്കുന്നത് ആ സാറ് പോന്നോളു പ്രശ്നോന്നും ഇല്ല നമ്മൾക്ക് വേണ്ടത് പോലെയെല്ലാം ചെയ്ത് തരാൻ പറ്റും

റേറ്റിപ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ഷർട്ടൊക്കെ ആണെങ്കിൽ ഒരു അറുന്നൂറ്റി തോണ്ണൂറ്റൊൻപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ത്രീ ഡബിൾ നൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും സാർ അതെ സാർ ക്വാളിറ്റിയുള്ളതാണ് ഓഫറിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി പെർസെന്റജ് ഓഫുണ്ട് സാർ

ഓഫറ് പിന്നെ നമുക്ക് സ്ക്രച്ച് കാർഡുകളും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ ഉണ്ട് സാറെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് സെക്കൻഡ് പ്രൈസ് എൽ സി ഡി ടി വി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സർ ഓ ഇന്നിപ്പോൾ ഉണ്ട് സാർ സ്റ്റാഫുകൾ കുറവാണ് ഇപ്പോൾ ഓണോക്കോ ആയതോണ്ട് നാളെ വന്നുകഴിഞ്ഞാൽ എടുക്കാം പറ്റും സർ കറക്റ്റ് മാനന്തവാടി മൈസൂർ റോഡാണ് സാർ

ഇല്ല സാർ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഞങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റും ഓ ഉറപ്പായും സർ ആയിക്കോട്ടെ സർ എന്നാൽ വന്നാൽ മതി